പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് അല്ലെങ്കിലൊരു എട്ട് മുതൽ പതിനെട്ട് വരെയുള്ള സെഞ്ച്വറി ഒരു മിഡീവിയൽ പിരീഡിനെ വെച്ച് നോക്കുകയാണെങ്കിൽ സ്ത്രീകളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ ഒരു പ്രാതിനിധ്യം അല്ലെങ്കിൽ ഒരു പങ്ക് സമൂഹത്തിൽ ഉയർന്നു എന്ന് വേണം പറയാൻ അന്നത്തെ കാലഘട്ടത്തിൽ അടിച്ചമർത്തപ്പെട്ടിരുന്ന ഒരു സ്ത്രീ സമൂഹം വളരെ വളരെ അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്ന ഒരു സമൂഹമുണ്ടായിരുന്നു അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടിരുന്നു പുനർവിവാഹത്തിനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടിരുന്നു ആ ഒരു സമയത്താണ് സതി പോലുള്ള ആചാരങ്ങൾ വന്നിരുന്നത് അവർക്ക് തൊഴിൽ തൊഴിലിടങ്ങളിൽ പ്രസക്തി ഇല്ലായിരുന്നു അതുപോലെ തന്നെ ശൈശവ വിവാഹത്തിലും മറ്റും അവർക്ക് അവരുടെ ജീവിത രീതി തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാലാവസ്ഥ ഉണ്ടായിരുന്നു ഇന്ന് അത് വെച്ച് നോക്കുമ്പോഴത്തേനും സ്ത്രീകൾ നമ്മുടെ നാട്ടിൽ എന്തുമാത്രം ഉയർച്ചയിലാണ് നിൽക്കുന്നത് എന്നോർത്ത് ഞാൻ അഭിമാനിക്കുകയാണ് കാര്യം സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ ഒപ്പമുള്ള പ്രാതിനിധ്യം ലഭിക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ എങ്കിൽ പോലും ചിലയിടങ്ങളിൽ സ്ത്രീകൾ മോശം അനുഭവങ്ങൾ നേരിടുന്നുണ്ട് അത് നമ്മുടെ സമൂഹത്തിൽ ശ്രദ്ധേയമായി നോക്കി കാണേണ്ട ഒരു വ്യവസ്ഥിതിയാണ് ജോലിയിലും വിദ്യാഭ്യാസത്തിലും സ്ത്രീകൾ ഇന്ന് നേരിടുന്ന വെല്ലുവിളികൾ മുൻകാലത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ് പുരുഷന്മാരുടെയൊക്കെ ഒപ്പം അല്ല പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം ലഭിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സുരക്ഷാസംവിധാനങ്ങൾ മെച്ചപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിനും പുനർവിവാഹത്തിനും അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുമുള്ള ഇഷ്ട പങ്കാളിയോട് ജീവിക്കാനുള്ള ഒരു അവകാശം നിയമം ഉറപ്പുവരുത്തുന്നു പണ്ടത്തെ സ്ത്രീകൾ അടിച്ചമർത്തപ്പെട്ടിരുന്നവരാണെങ്കിൽ ഇന്നത്തെ സ്ത്രീകൾ ശബ്ദി ശബ്ദിക്കുന്നവരാണ് നമ്മുടെ നിയമനിർമ്മാണത്തിലും അല്ലെങ്കിൽ ജനങ്ങളെ ഭരിക്കുന്നതിൽ പോലും സ്ത്രീകളുടെ പങ്ക് വളരെ ഇതാണ് ബഹിരാകാശത്ത് പോലും സ്ത്രീകളുടെ പ്രാതിനിധ്യം എത്തിക്കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമായ നേട്ടമാണ് ജോലിക്കും വിദ്യാഭ്യാസത്തിനും വേറെ സ്ഥലങ്ങളിൽ പോകാൻ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ പലപ്പോഴും ഈ സ്വാതന്ത്ര്യങ്ങൾ മിസ്സ്യൂസ് പെ ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ മിസ്ലീഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ തോന്നുന്നുണ്ട് സ്ത്രീകൾ അവർക്കുണ്ടാകുന്ന ഒരു പ്രിവിലേജ് സ്ത്രീകൾ അവർക്കുണ്ടാകുന്ന ഒരു പ്രിവിലേജ് പലപ്പോഴും യൂട്ടിലൈസ് ചെയ്യുന്നതോടൊപ്പം അവർ അവരുടെ സ്വാർത്ഥത താല്പര്യങ്ങൾക്കായി ഒരു വിഭാഗമെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അത് പുരുഷൻ എന്ന് പറയുന്ന ഒരു സമൂഹത്തിന് സാരമായി ബാധിക്കുന്നുണ്ട് ഈയൊരു സ്ത്രീത്വം എന്നത് ഒരു ആയുധമാക്കി എടുക്കുന്നതിലൂടെ പവിത്രമായ ഒരു മൂല്യം അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസത്തിനും സ്ഥലങ്ങളിൽ പോകാൻ സ്ത്രീകൾക്ക് വെല്ലുവിളികൾ ഉണ്ടെന്ന് ഞാൻ ഒരു കാരണവശാലും വിചാ വിചാരിക്കുന്നില്ല തെങ്ങുകയറ്റം മുതൽ അല്ലെങ്കിൽ ഒരു കെട്ടിട നിർമ്മാണം മുതൽ അല്ലെങ്കിൽ ഏതൊരു ബഹിരാകാശത്ത് പോകുന്നതിനു വരെ സ്ത്രീകളുടെ പ്രാതിനിധ്യമുണ്ട് അതുകൊണ്ടുതന്നെ അങ്ങനെ ഒരു വെല്ലുവിളി ഉണ്ടെന്നൊന്നും ഒരിക്കലും ഞാൻ വിചാരിക്കുന്നില്ല നങ്ങൾ ഞങ്ങളുടെ പ്രദേശത്ത് സ്ത്രീകളിൽ നിന്ന് പുരുഷനെന്ന വിവേചനം പാടെ മാറിയിട്ടുണ്ട് അവർക്ക് പുരുഷന്മാരിൽ പുരുഷന്മാർക്ക് ഏത് ലെവൽ ആണോ അവരിരിക്കുന്നത് അതിന് ഒരു പടി മുകളിൽ എന്ന് ഞാൻ പറയും അവർക്ക് ജോലി ചെയ്യാനും സ്വന്തമായി ജീവിതം നയിക്കാനും അവർ ആഗ്രഹിക്കുന്ന വിദ്യാഭ്യാസം നേടിയെടുക്കാനുമുള്ള ശേഷി നിയമം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ നിയമത്തിലൂന്നി ജീവിക്കുന്ന ഒരു അവസ്ഥാന്തരം ഉണ്ടെങ്കിൽ സ്ത്രീകൾക്ക് സ്ത്രീകൾ തന്നെയാണ് സമൂഹത്തിൻ്റെ നട്ടെല്ല് എന്ന് ഞാൻ പറയും താങ്ക് യൂ